ഇപ്പോൾ സൈക്കിൾ നമ്മൾ ഓടിക്കുമ്പോഴും കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചക്രത്തിൽ ഓടുന്ന ഒരു ഇതാണ് കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും പറ്റാം അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഒരു സൈക്കിൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് കാരണമെന്ന് വെച്ച്കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ ടയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല ഹാൻഡിൽ ബ്രേക്ക് നമ്മുടെ മെയിൻ ആയിട്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ പ്രധാനമായും ചെക്ക് ചെയ്യേണ്ടത് കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ഇറക്കത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ബ്രേക്ക് പൊട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവനുതന്നെ അത് ആപത്തായിട്ട് വരും കാരണം നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി എന്തായാലും നിൽക്കുകയുള്ളൂ പിന്നെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ വണ്ടിയും പോകും നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ വരും ഇപ്പോൾ കയ്യും കാലൊക്കെ ഓടിയുക അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടാകും പിന്നെ നമുക്കാ ട്രിപ്പ് മുടങ്ങും ചെയ്യും അപ്പോൾ മൂന്ന് കാര്യമായിരിക്കും നമുക്ക് നഷ്ടത്തിലാവുക അപ്പോൾ നമ്മൾ എന്തായിട്ടും മെയിൻ ആയിട്ട് നമ്മൾ വണ്ടി നന്നായിട്ട് നോക്കണം ആ അതാണ് മെയിൻ ആയിട്ട് പിന്നെ ടയർ കാര്യങ്ങൾ വീൽ ജാമ്ണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളാകണം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് പിന്നെ സൈക്കിൾ യാത്രയ്ക്കു പോകുമ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ പിന്നെ സൈക്കിളിന് പ്രത്യേകിച്ച് ലൈസൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഈ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്